ഒമ്പത് ലക്ഷത്തി തൊണ്ണുറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എട്ട് ലക്ഷത്തി എഴുപത്തേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് ഏഴ് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രണ്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുനൂറ്റി ഇരുപത്തൊന്ന് ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി പന്ത്രണ്ട്